എൻ്റെ നാട്ടിലെ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ സ്റ്റേഡിയത്ത് നടത്തുന്നത് പറയുമ്പോൾ ഫുട്ബോൾ നടത്താറുണ്ട് ക്രിക്കറ്റ് നടത്താറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം അവിടെ നാട്ടിലുള്ള കുട്ടികൾ അവരെല്ലാവരും വന്നിട്ട് കളിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാർ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ അത് കാണികളായിട്ട് വരാറുണ്ട് പിന്നെ അവർ കുറേ ആൾക്കാരെ ക്ഷണിക്കാറുണ്ട് സിനിമ നടന്മാരെ ആയിക്കോട്ടെ നടികളെ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് അവർ ക്ഷണിക്കുന്നുണ്ട് അപ്പം അവരൊക്കെ ഈ പരിപാടിയിൽ വരും അത് കാണും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിർദ്ദേശങ്ങൾ നൽകും ആ കളിക്കുന്ന കുട്ടികളെ അനുഗ്രഹിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ് പേരെ വെച്ചിട്ടുള്ള പരി പരിപാടികൾ ആയിരിക്കാം ചിലപ്പോൾ അൻപത് പേര് അങ്ങനെ ഓരോ രീതിയിലുള്ള പരിപാടികളാണ് ഓരോ ട്ട സമയങ്ങളിൽ നടത്തിവരുന്നത് പിന്നെ എന്താണ് പറയുക അവർ വന്നിട്ട് അത് കാണുമ്പോൾ അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യുന്ന ആ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് അതൊരു പ്രചോദനം തന്നെയാണ്